കേരള സംസ്ഥാനത്തില് യാത്ര വളരെ ദുഷ്ക്കരമാണ് നമ്മുടെ വഴികളെല്ലാം അത്യാവിശ്യം മോശം തന്നെയാണ് പിന്നെ അത് കൂടാതെ യാത്ര ചിലവെന്ന് പറയുമ്പോൾ പെട്രോളും ആണ് നമുക്ക് ചിലവ് വരുന്നത് മെയിൻ ഘടകം ഇപ്പൊക്കെ പെട്രോളിൻ്റെ വെലയ്ക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് നഷ്ടം ആണ് സാധാരണക്കാരില് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വാഹനം നമ്മള് കയ്യില് വെക്കുവാണെങ്കില് അത്രയും നമ്മളത് ഉപകാരപ്രദവും നമുക്ക് ലാഭവും ആയിരിക്കും